എൻ്റെ രണ്ടാമത്തെ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ അയൺ ബോക്സാണ് അതായത് ഇസ്തിരിപ്പെട്ടി നമുക്ക് അത് ഉപയോഗം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം എവിടെങ്കിലും പോകാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് തേക്കാൻ വേണ്ടീട്ട് അതായത് ഷർട്ടൊക്കെ നല്ല രീതിയിൽ ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ആക്കാൻ വേണ്ടീട്ടാണ് നമുക്കത് നമ്മളത് ഉപയോഗിക്കുന്നത് പണ്ടൊക്കേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇസ്തിരി പെട്ടി പറഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ചിരട്ട കത്തിച്ചിട്ട് ഒരു ഇതാണ് ഉപയോഗിക്കുന്നുണ്ടായിരുന്നത് ഇപ്പമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കരണ്ടിലൊക്കെ കുത്തീട്ട് നമ്മൾ തേക്കുന്നതാണ് ഇപ്പോഴത്തേത് അതാണ് ഏറ്റവും കൂടെ കുറച്ചും കൂടെ നല്ലതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ഡ്രെസ്സിന് നല്ല ഷൈനിങ്ങ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നേന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ നെഗറ്റീവെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ് അതായത് കറൻ്റെ ചാർജ് കൂടുതലാണ് കറൻ്റെ ചാർജ്ജ് ഹീറ്റാകുന്നതിനനുസരിച്ച് അതിൻ്റെ ചൂട് കൂടുന്നതിനനുസരിച്ച് കറൻ്റെ ചാർജ് കൂടുതലായിട്ട് വരും നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് യൂസ് ചെയ്യുന്നതിനനുസരിച്ച് കറൻ്റെ ചാർജ് കൂടുതലായിട്ടാണ് വരുക അപ്പം അതൊരു നെഗറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ നമുക്ക് കൊണ്ട് നടക്കാനക്കെ അടിപൊളിയാണ് പക്ഷേ അതിൻ്റെ വയറ് ചില സമയങ്ങളിൽ മുറിഞ്ഞ് പോകാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് പെട്ടെന്ന് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്